ശാസ്ത്രത്തിൽ ഈ ശാഖയെ അസ്ട്രോണമിന്നാണ് പറയുന്നത് അപ്പം ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റൈയിൽഡായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ ബഹിരാകാശം സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ നക്ഷത്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ബഹിരാകാശത്തെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റൈൽഡായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് അപ്പം നക്ഷത്രങ്ങളെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ പാഠ്യപദ്ധതിയിലായിക്കഴിഞ്ഞാലും ശരി എല്ലാ ക്ലാസ്സുകളിലും ഫിസിക്സിൽ ഈ ഇതിനെ പറ്റി അസ്ട്രോണമിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിനെ കുറിച്ചൊക്ക കുട്ടികൾക്ക് ഡീറ്റൈൽഡായിട്ട് അറിവ് കിട്ടാൻ വേണ്ടിട്ട് സഹായപ്രദമാവേണ്ട ഒന്നാണ് ഈ നക്ഷത്രങ്ങളെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും ഉള്ള പഠനമെന്ന് പറയുന്നത്